ആ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ പറയൂ എന്നാ എന്നായിരുന്നു ചേട്ടാ ആ ആ ആ എന്നത്തേനായിരുന്നു അഞ്ചാം തീതി എന്ത് ഫംക്ഷനാണ് ആ ഓക്കെ ഓക്കെ എന്തേലും സാധനം ഓർഡർ ചെയ്യാൻ ആയിരുന്നോ ആ ഹാ ഹാ ആ ഇവിടെ നമ്മൾ ചെറുകിട ഐറ്റംസാണെങ്കിൽ നമ്മൾക്ക് ബോണ്ടയുണ്ട് പഴംപൊരിയുണ്ട് അതുപോലെ തന്നെ ചുക്കപ്പം ഉള്ളിവട ബോണ്ട അങ്ങനെ ഉള്ള എല്ലാ എല്ലാ വിധ ചായക്കടികളും ഉണ്ട് ചായ അങ്ങനത്തെ ഐറ്റംസാണോ വേണ്ടത് അതെയോ പിന്നെ ഇപ്പോൾ ആ അപ്പമോ ആ അപ്പം ഉണ്ട് അതുപോലെ തന്നെ പൊറോട്ടയുണ്ട് ആ അപ്പം ആ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പമുണ്ട് അപ്പെ അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസുമുണ്ട് അപ്പം ഇടിയപ്പം പിന്നെ കപ്പ വേണമെങ്കിൽ കപ്പയുണ്ട് ഇടിയപ്പം വേണേൽ ഇടിയപ്പം ഉണ്ടങ്ങനെ എല്ലാ വിധ ഐറ്റംസും ഉണ്ട് ഏതായിരുന്നു വേണ്ടത്

മിക്സ് ചെയ്ത് വാങ്ങിക്കാനാണോ അപ്പം ആ അങ്ങനെയുള്ള ഫുഡൈറ്റംസാണേലും ഏത് ഐറ്റമാണേലും മിനിമം ഒരു ഇരുപത്തഞ്ച് എണ്ണം എടുക്കണം ഇപ്പം ഇടിയപ്പം ആണേൽ ഇരുപത്തഞ്ച് എണ്ണം എടുക്കണം അപ്പം ആണേൽ ഇരുപത്തഞ്ച് എണ്ണം കപ്പയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെ ആ ടോട്ടൽ എത്ര ആ ടോട്ടൽ ആ നൂറ് പേർക്കുള്ള ഫംഗ്ഷനാണ് ആ ഓക്കെ ഓക്കെ അപ്പം എന്ത് അത് ഇപ്പം ചെറുകടി ചെറുകടി വേണ്ടല്ലോ അല്ലേ അപ്പം ആണെങ്കിൽ ഒരപ്പത്തിന് ഏഴ് രൂപ വെച്ച് കൂട്ടാം ഇടിയപ്പവും ആണേലും ഒരപ്പത്തിനേഴ് രൂപ പൊറോട്ടയാണെങ്കിൽ പത്ത് രൂപയാണ് കപ്പ ആ ഒരു കപ്പയ്ക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയും ആകും കപ്പ ആകുമ്പം കറികളും കറിയും കൂടെ വേണ്ടേ മീൻകറിയാണോ അതെയോ ഇറച്ചിയാണോ എങ്ങനെയാണ് ആണല്ലേ ഓക്കെ ഓക്കെ മീനാണെങ്കിൽ മീനാണെങ്കിൽ ഒരാൾക്കുള്ളതാണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇറച്ചിയാണെങ്കിൽ നാൽപത് രൂപ മുപ്പത് രൂപ ഒരു കറിക്ക് മുപ്പത് രൂപ അത് ഇറച്ചിയാണെങ്കിൽ നൽപത് രൂപ ഒരാൾക്ക് അപ്പം ടോട്ടൽ എത്ര എത്ര പേർക്ക് അങ്ങനെ അപ്പം എത്ര കപ്പ വേണം ആ ടോട്ടൽ നൂറ് പേർക്കുള്ളത് അപ്പം ആ അപ്പം എത്ര എണ്ണം വേണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇടിയപ്പം ആ ഇടിയപ്പം ഇരുപത്തിയഞ്ച് അപ്പം ഇരുപത്തിയഞ്ച് പൊറോട്ട ഇരുപത്തിയഞ്ച് കപ്പ ഇരുപത്തിയഞ്ച് അങ്ങനെ ആകുമ്പം കറക്ട് ആകുമല്ലോ അങ്ങനെ മതിയോ അതോ ഇനി എക്സ്ട്രാ എടുക്കണോ കുറച്ചും കൂടെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ കപ്പയും കപ്പയും ഇറച്ചി സോറി കപ്പയും പൊറോട്ടയും ഒരു മുപ്പത്തഞ്ചെണ്ണം വീതം വയ്ക്കാം ഓക്കെ അപ്പം എന്നത്തേനായിരുന്നു ഡേറ്റ് എന്നത്തേനായിരുന്നു അഞ്ചാം തീയതി അല്ലേ ഓക്കെ ഓക്കെ ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ നമ്പർ ഈ വിളിക്കുന്ന നമ്പറാണോ ഓക്കെ അപ്പം കടയിലോട്ട് നേരിട്ട് വരുമോ ഓ ആണോ എത്ര സമയം എത്ര മണി ആകുമ്പത്തേനും എത്തിക്കണം അഞ്ച് അഞ്ചാം തീയതി ആ രാവിലെ പതിനൊന്നര ആകുമ്പത്തേനും അല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പം അപ്പത്തിനാണെങ്കിൽ എന്താ കറി വെക്കണ്ടത്

വെജിറ്റബിൾ കറി വേണം ഓക്കെ ഓക്കെ ആ ഹാ ആ സ്റ്റൂ വേണം ആ ഓക്കെ ഓക്കെ ആ സ്റ്റൂവിനാണെങ്കിൽ നാൽപ്പതാകും കേട്ടോ ഞാനെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എസ്റ്റിമേറ്റ് ബിൽ ഞാൻ ഇതു വാട്സാപ്പ് നമ്പറാണോ ആ അത് വാട്സപ്പ് നമ്പറാണ് ഞാൻ അതിനകത്തോട്ട് അയച്ചേക്കാം അപ്പം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ തിരിച്ച് വിളിക്കാൻ പറ്റുമോ

ആ ഓക്കെ ഓക്കെ ആ അത് ശെരിക്കും നമ്മൾ കുറഞ്ഞ റേറ്റ് തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കാറ് പിന്നെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കുടുംബശ്രീയിൽ ചേച്ചിമാരെ കൊണ്ട്

ആ അതെ അപ്പം പിന്നെ എന്നാ അത് ഞാൻ ബില്ലൊന്ന് എസ്റ്റിമേറ്റ് ബില്ലിട്ടേക്കാം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതിയേ ഓക്കെ സാർ താങ്ക്യൂ താങ്ക്യൂ സാർ